ഞങ്ങളുടെ നാട്ടിലെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് മുരുകനാണ് മുരുകൻ്റെ പ്രധാന വിശേഷ ദിവസമാണ് ഷഷ്ടി വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന വിശേഷമാണ് തൈപ്പൂയം മുരുകൻ്റെ നാൾ തൈപൂയമായതിനാൽ തന്നെ തൈപ്പൂയം എല്ലാ വർഷവും ഒരു ദിവസം തൈപ്പൂയമായി ആഘോഷിക്കാറുണ്ട് എന്നാൽ എല്ലാ എല്ലാ അമ്പലങ്ങളിലെയും ഉത്സവങ്ങൾ നടക്കുന്നതു പോലെ എട്ട് ദിവസത്തെ ഉത്സവ ചടങ്ങുകളും നടക്കാറുണ്ട് മറ്റ് പ്രത്യേകമായ ആചാര രീതികളൊന്നുമില്ല എല്ലാ ക്ഷേത്രത്തിലും എങ്ങനെയാണോ ദൈവ ദേവി ദേവന്മാരെ പൂജിക്കുന്നത് അതുപോലെ തന്നെ മുരുകനെയും പൂജിക്കുന്നു